ട്രെയിനിനെ കുറിച്ച് വിവരിക്കുക അല്ലെങ്കിൽ വർണ്ണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം ട്രെയിനെന്ന് കേൾക്കുമ്പം തന്നെ എല്ലാവർക്കും ഒരു കൗതുകമാണ് കുട്ടികൾക്കാണെങ്കിൽ അത് കൗതുകവും വലിയവർക്കാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു കൗതുകമാണ് കാരണം പാമ്പു പോലെ ഇത്രയും നീളമുള്ളൊരു സാധനം അതിൽ കേറാനും അതിൽ സഞ്ചരിക്കാനും എല്ലാവർക്കും ഒരു കൗതുകമാണ് ആദ്യമായി കാണുന്ന ഒരു കുട്ടിക്കായിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കായിക്കോട്ടെ ഒരു കൗതുകമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നത് ട്രെയിനിൻ്റെ ശബ്ദം എല്ലാവർക്കും ഇഷ്ട്ടമാണ് കാരണം ഒരു നല്ല വെറൈറ്റി ശബ്ദമാണ് ട്രെയിനിൻ്റെ എല്ലാവരും അത് അനുകരിക്കാൻ അനുകരിച്ച് കാണിക്കാനൊക്കെ നോക്കും അനുകരിച്ച് സ്റ്റേജുകളിൽ അനുകരിക്കാൻ പോകുക എല്ലാ കലാപരിപാടികളിലും ട്രെയിനിൻ്റെ ശബ്ദം അനുകരിക്കുകയൊക്കെ ചെയ്യും ട്രെയിനിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഒരു ബോഗി അല്ലെങ്കിൽ ഒരു പാർട്ട് എടുത്ത് വെച്ചുവെച്ചാൽ സീറ്റുകളായിക്കോട്ടെ എല്ലാം വളരെ നല്ല ക്രമീകരണങ്ങളാണ് സീറ്റുകളെന്ന് പറഞ്ഞാച്ചാൽ രണ്ട് തട്ടായിട്ടാണ് താഴെ താഴെയും ഇരിക്കാം മേലെയും ഇരിക്കാം അതുപോലെ തന്നെ സീറ്റ് ഇരിക്കാനും പറ്റും കിടക്കാനും പറ്റും അതിനുള്ള സജ്ജീകരണങ്ങൾ ട്രെയിനിൽ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോളുളള ട്രെയിനുകളിൽ പറഞ്ഞാച്ചാൽ ഒരു യാത്രക്കാരന് ഇരിപ്പിടങ്ങളുടെ അടുത്ത് തന്നെ മൊബൈൽ ചാർജിംഗ് അതുപോലെ തന്നെ ടേബിൾ സെറ്റ് അപ്പ് എല്ലാം ഉണ്ട് ട്രെയിനിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾക്ക് പ്രധാനത എന്നത് വിൻഡോ സൈഡിലുള്ള വിൻഡോ സൈഡി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതലായിട്ട് ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ പറ്റുക അങ്ങനെയാണ് ട്രെയിനിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ബർത്തുകളെല്ലാം ഇങ്ങനെ ഓരോ ഓ എന്താണിപ്പൊരു ഓരോ കട്ടകളായിട്ടാണ് ഇങ്ങനെ നമുക്ക് തോന്നുക പക്ഷെ അതെല്ലാം ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ച് നല്ല ചന്തത്തിലാണ് ട്രെയിനുകളിലെ ബെർത്തുകൾ അതുപോലെ എൻജിൻ എല്ലാം എൻജിൻ എന്ന് പറഞ്ഞാച്ചാൽ ഹെവിയായി ശബ്ദമില്ലാത്ത എൻജിനാണ് ട്രെയിൻ ഓടുമ്പോളുള്ള ശബ്ദം പറഞ്ഞാച്ചാൽ അത് എൻജിൻ്റെ ശബ്ദം അല്ലാതെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു സൗണ്ടാണ് അല്ലാതെ ട്രെയിനിൻ്റെ എൻജിൻ്റെ സൗണ്ട് കൊണ്ടല്ല എൻജിന് ജസ്റ്റ് ഒരു ചെറിയ സൗണ്ടേ ഉള്ളൂ പിന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് പുറം തള്ളപ്പെടുന്ന പുക അതെല്ലാം ട്രെയിൻ ഹൈ ലൈറ്റായി കാണിക്കുന്നതെന്താണ് ട്രെയിനിൻ്റെ ചക്രങ്ങൾ വന്നിട്ട് ചെറിയ ചക്രങ്ങളാണ് അതും ഇരുമ്പിൽ ഉള്ള ചക്രങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ പാളം അതൊന്ന് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് കാരണം ട്രെയിൻ പാളം പറഞ്ഞാച്ചാൽ നമ്മുടെ നമ്മുടെ റോഡുകൾ പോലെ സ്ട്രൈറ്റ് അങ്ങനെ അല്ല ഇപ്പോൾ ട്രെയിൻ പാളമിങ്ങനെ കുറുകെ കുറുകെയുള്ള പാളങ്ങളുണ്ട് അതിലെല്ലാം കുറേ ടെക്നിക്കുകളുണ്ട് കാരണം ആ കുറുകെ കുറുകെയുള്ള പാളങ്ങളിൽക്കൂടിയാണ് ഈ ട്രെയിൻ നല്ല വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ റോഡുകളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയാച്ചാൽ കാണാം വളവുണ്ടെന്ന് പക്ഷെ റെയിൽ പാളത്തിലങ്ങനെ വളവുകളെല്ലാം ചെറിയ ചെറിയ ടെക്നോളജി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കി ചേഞ്ച് ആക്കിയിട്ട് ട്രെയിനുകളിങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ പാലക്കാടുള്ള എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടത് തമിഴ്നാട്ടിലേക്കാണ് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് ആകുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിൻഡോ സീറ്റ് വിൻഡോ സീറ്റിൽ വിൻഡോ സൈഡിൽ ഇരിക്കുന്ന എനിക്ക് തമിഴ്നാട് പോകുമ്പോൾ ആസ്വദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ട്രെയിൻ പോകുമ്പോൾ ആസ്വദിക്കാൻ പറ്റും കുറേ കാടുകളുണ്ട് മലകളുണ്ട് പിന്നെ ചെറിയ ചെറിയ വീടുകൾ അതുപോലെ ഇപ്പോൾ തമിഴ്നാട് ബോഡർ ആയിയെന്ന് വെച്ചാൽ റെയിൽ വേയിൽ പോകുമ്പോൾ ഫുൾ തെങ്ങിൻ തോപ്പ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ചുറ്റും രണ്ട് സൈഡ് വന മേഖലയാണ് വാളയാർ ആ ഭാഗത്ത് എത്താറാകുമ്പോൾ ഒരുപാട് മലകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടു തന്നെ ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റും വിൻഡോ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ തമിഴ്നാട് എത്തി കഴിഞ്ഞാലും കായലിൻ്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കും പിന്നതുപോലെ ഒരു നോയ്സ് അങ്ങനെ നോയ്സ് ഇങ് അങ്ങനെ ഉണ്ടാകില്ല നമുക്ക് കാരണം ഒരു ബുക്ക് ചെയ്ത ഒരാൾ സീറ്റ് ബുക്ക് ചെയ്ത അറിയുമോയെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ എത്തുന്ന വരെ എങ്ങനെ വേണേലും ആസ്വദിക്കാം ആസ്വാദനം ആസ്വദിക്കാൻ പറ്റിയ യാത്രകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒന്ന് ഒന്നാണ് ട്രെയിൻ ഫാസ്റ്റ് പോകുമ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതുപോലെ സമയത്തിനും വേഗത്തിൽ എത്തും കുറേ കാഴ്ച കാണാൻ പ്രകൃതി പ്രകൃതിയെ കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ട്രെയിൻ പാളങ്ങൾ അതുപോലെ ട്രെയിനിൻ്റെ റൂട്ട് ട്രെയിൻ പോകുന്ന റൂട്ടെല്ലാം പ്രകൃതിയുമായി കൂടുതൽ ബന്ധപ്പെട്ടു കിടക്കുന്നു അതുകൊണ്ട് നമുക്ക് മലകൾ പുഴകൾ എല്ലാം കൂടുതലായി കാണാൻ പറ്റും അതുപോലെ ചിലപ്പോൾ വന്യ ജീവികളെ കാണാൻ പറ്റും അപ്പോൾ വാളയാറിനപ്പുറം പോയിട്ട് ചിലപ്പോൾ റെയിൽ വേ ട്രാക്കിൽ നിന്ന് കുറച്ച് വിട്ട് വെച്ചേച്ചാൽ ആ മലകളുടെ താഴെ ചിലപ്പോൾ കാട്ടാനകൾ അങ്ങനെ ആനകളെ കാണാനെല്ലാം പറ്റും അത്രയും ഭംഗിയുള്ളൊരു യാത്രാ അനുഭവം കിട്ടുന്നൊരു സാധനമാണ് ഇതാണ് ട്രെയിൻ